ഞാൻ ഓൺലൈനിൽനിന്നും ഓർഡർ ചെയ്ത് വാങ്ങിയ മൊബൈൽ ഫോണിന് ചാർജർ ഉണ്ടായിരുന്നില്ല വീണ്ടും ഞാൻ ഓൺലൈനിൽനിന്നും ഓർഡർ ചെയ്താണ് ചാർജർ വരുത്തിയത് വരുത്തുന്ന അത്രേം ദിവസം എനിക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടുതന്നെ എനിക്ക് അത്രേം ദിവസം ഉപയോഗിക്കാനും കഴിഞ്ഞില്ലാ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് അത് ഉപയോഗിച്ചത് ഉപയോഗിച്ച് നോക്കുമ്പോൾ ക്യാമറക്ക് ക്ലിയർ കുറവായിരുന്നു

പിന്നേ അതിൻ്റെ വളരെ ചാർജർ സൂട്ടാവുന്നും ഉണ്ടായിരുന്നില്ല